ഹലോ ആ ചേട്ടാ ഞാൻ ഇതുപോലെ ഈ മസ്സാജ് സെൻറർ അല്ലേ ഇത് ആ ഞാൻ ഇതുവരെ അവിടുത്തെ ഏതൊക്കെ ടൈപ്പ് മസ്സാജ് ഉണ്ടെന്നറിയാൻ വേണ്ടി അതിനെ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ

ബഡ്ജറ്റ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് വിഷയമില്ല ഫാമിലിയിൽ അഭിപ്രായം ഒന്നുരണ്ട് അവർക്ക് പിന്നെ അല്ലാതെ ഞാണ് ആ എല്ലാവർക്കും അതിൽ മൂന്നാല് ഇത് മൂന്ന് നാ മൂന്നാല് പേർ കാണും എല്ലാം അന്നേരം ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണോ അതോ സിംഗിൾ സെപറേറ്റ് സെപ്പറേറ്റ് ആണോ എങ്ങനെയാണ് അഞ്ച് പേരുണ്ട് ആ ഒരു മാസം ചികിത്സ എന്നാണ് പറഞ്ഞത് ആ സ്റ്റേ ഒക്കെ അവിടെ അട് അവിടെ തന്നെ ആണോ അതോ ഓക്കെ ഓക്കെ

അപ്പം അത് നേരെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ വന്ന് ബുക്ക് ചെയ്താലും മതിയോ ആ അപ്പോൾ ഇന്ന് ഇന്ന് ആ ഇന്ന് അങ്ങ് ബുക്ക് ചെയ്തോളാം

ഓക്കെ ഓക്കെ ഇല്ല ഇനി ഏന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു